ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ ആ ഡോക്ടറേ എനിക്ക് മൂന്ന് ദിവസമായി പനി തുടങ്ങിയിട്ട് അപ്പോൾ നല്ല പനിയുണ്ട് ചെറുതായിട്ട് തൊണ്ട വേദനയുണ്ട് ഇപ്പോൾ ഇന്നലെ തുടങ്ങി ശരീരം മുഴുവൻ വേദനയുണ്ട് ആ കോവിഡിനുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം ഉണ്ടായിരുന്നോ കോവിഡ് ഇതുവരെ വന്നിട്ടില്ല ഫാമിലിയിൽ ഒന്നുരണ്ട് പേർക്ക് ഉണ്ടായിരുന്നു ആ അടുത്ത് കോൺടാക്ട് ഒന്നുമില്ലായിരുന്നു പിന്നെ പനിയുള്ള രണ്ട് പേരുണ്ടായിരുന്നു അവർക്ക് കോവിഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ട്സ് തന്നെ രണ്ട് പേരുണ്ടായിരുന്നു പിന്ന ഞാൻ പെനഡോള് രണ്ടു ദിവസായിട്ട് കഴിക്കുന്നു എന്താ സാറേ വാക്സിൻ രണ്ടെണ്ണം എടുത്തിരുന്നു രണ്ടര മാസം കഴിഞ്ഞു ആ ഞാൻ പെനഡോൾ കഴിച്ചിരുന്നു പിന്നെ ആ പാരസെറ്റമോൾ അറുന്നൂറ്റി അൻപത് എം ജി രണ്ടു ദിവസം കഴിച്ചിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായി ആ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് സ്മെല്ലൊന്നും അറിയാൻ പറ്റുന്നില്ല സ്മെല്ലൊക്കെ നല്ല വ്യത്യാസം ആ വന്നു തുടങ്ങി ചെയ്തിട്ടില്ല ആ സാറേ ഞാൻ നാളെയങ്ങ് നാളെയാണോ ടെസ്റ്റ് നടത്തേണ്ടത് സാറേ ആ ഓക്കേ താങ്ക് യു